സ്റ്റാമ്പുകളും നാണയങ്ങളും കല്ലുകളും ശേഖരിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മൂല്യമാണുണ്ടായിട്ടുള്ളത് കാരണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സ്റ്റാമ്പുകള് ശേഖരിക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് എന്താ കുട്ടികൾക്ക് അതിൻ്റേതായ ഇതുണ്ടാവും എന്നുവെച്ചാല് പണ്ടുകാലത്ത് അങ്ങനെയൊരു പരിപാടി നടന്നിരുന്നു അതിൻ്റത് അതിൻ്റെ ഇതുകൊണ്ടാണ് നമുക്ക് സ്റ്റാമ്പുകള് ആ ചിത്രത്തിലുള്ള സ്റ്റാമ്പുകള് കിട്ടുന്നത് അങ്ങിനെയൊക്കെ പറയാം പിന്നെ നാണയങ്ങളാണെങ്കില് നാണയങ്ങള് ശേഖരിക്കുന്നതിലൂടെ കുട്ടികൾക്ക് വലിയ മൂല്യം തന്നെയാണ് കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പണ്ടുകാലത്ത് ഇരുപത്തി അഞ്ച് പൈസ അമ്പത് പൈസ അതുപോലെത്തന്നെ ഒരു നാണയം അഞ്ച് നാണയം അങ്ങിനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഇപ്പത്തെ തലമുറയിലെ കുട്ടികൾക്ക് പണ്ടുള്ളവര് ശേഖരിച്ച് വച്ചതോടെ ഇപ്പത്തെ കുട്ടികൾക്ക് അത് കാണാനും അങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാനും നല്ലതാണ് അപ്പം അവർക്കതിൻ്റേതായ അറിവ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ മൂല്യം തന്നെയല്ലേ ഇണ്ടാവുന്നത് അതുകൊണ്ടവർക്കത് പഠിക്കാനല്ലേ കഴിയുന്നത് അതുകൊണ്ട് നാണയങ്ങളും സ്റ്റാമ്പുകളും കല്ലുകളൊക്കെ ശേഖരിക്കുന്നത് നല്ലത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്